ഓക്കെ പറയൂ ആരാണിത് ആ പറയൂ പറയൂ എന്താണ് പറ്റിയത് ശ്രീരാജ് ക്ലാസ്സിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് ശ്രദ്ധക്കുറവുണ്ട് ചില തവണ നമ്മൾ ക്ലാസ്സെടുക്കുമ്പോൾ ആൾ വേറെ ലോകത്താവും പിന്നെ നമ്മൾ വിളിക്കണം അപ്പോഴാണ് ശ്രദ്ധിക്കുള്ളൂ മ് പഠിക്കുന്നൊക്കെയുണ്ട് മ് അവന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ അല്ലാണ്ട് വലിയ കുഴപ്പമില്ല അവൻ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുട്ടി തന്നെയാണ് ആ അതെ അവന് മാത്സ് ഇച്ചിരി മ് പറഞ്ഞോളൂ

ആ ഓക്കെ ഇപ്പോൾ ട്യൂഷന് വിടുന്നുണ്ടോ അവിടെ അവനെ

ആ അവന് കാലിബർ ഉണ്ട് അവന് അവൻ അവൻ തന്നെ പഠിച്ചാൽ അവന് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങളൊന്നു കൂടെയൊന്നിരുന്നു ട്രൈ ചെയ്താൽ മതി മ് ആൾ സ്മാർട്ട് ആണ് മ് അതെയോ ആ എക്സാം ഇപ്പം അടുത്തയാഴ്ച തന്നെ വരുന്നുണ്ട് അപ്പോൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ടോപിക്സ് റിവിഷൻസ് ഒക്കെ നമ്മളിപ്പോഴാണ് നടത്തുന്നത് അപ്പം ഇപ്പോൾ ലീവ് എടുത്തുകഴിഞ്ഞാൽ ഭയങ്കര അവനുതന്നെ അതൊരു ബുദ്ധിമുട്ട് ആവും

അതെയോ

ആ അങ്ങനെയാവുമ്പോൾ നിങ്ങളൊന്ന് അതെയോ ലീവിൻ്റെ കാര്യം ഒന്ന് ഞാനൊന്നു പ്രിൻസിപ്പലിനോട് ഡിസ്കസ് ചെയ്യട്ടെ കാരണം കുട്ടിക്ക് വയ്യെങ്കിൽ പിന്നെന്തായാലും വരാൻ പറ്റില്ല പക്ഷേ നിങ്ങളൊന്ന് മെയിൻ ആയിട്ടൊന്ന് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും കാരണം നമ്മൾ ഈ ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ടോപിക്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സാം അല്ലേ ആ അപ്പോൾ പിന്നെ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്താണ് ആ അപ്പം എന്താണ് എങ്ങനെ പനി ഇപ്പോൾ എങ്ങനെയാണ് വന്നത്

അതെയോ ഡ്രിപ് ഒക്കെ ഇട്ടായിരുന്നോ അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് അഡ്മിറ്റ് ആയിരുന്നു അല്ലേ

അയ്യോ ഇപ്പം എങ്ങനെ ക്ഷീണം ഉണ്ടാവുവോ ഒരു വിധം ആ അതെ ഇപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ് മ് അപ്പോഴും ചില പിള്ളേരൊക്കെ ചുമയും ഇതൊക്കെ ഉണ്ട് മ് മ് ഇപ്പോൾ അവരുടെന്നാരുടേന്നേലും വന്നതായിരിക്കും പിന്നെ അവനും എന്തായാലും പനി മാറിയാലും മഴയൊന്നും കൊള്ളിക്കാൻ നിൽക്കേണ്ട ഭയങ്കരായിട്ട് ഇതാവും മ് ആ ക്ഷീണം ഉണ്ടാവും അല്ലേ ആ അങ്ങനെയാവുമ്പോൾ ഞങ്ങൾ നോട്സ് ഒക്കെ അതെയോ എന്തായാലും കുട്ടി റെസ്ററ് എടുക്കുക തന്നെ കാരണം ഇപ്പോൾ റെസ്ററ് എടുത്താലേ എക്സാമിനു വന്നെഴുതാൻ പറ്റുന്നുണ്ടാവുള്ളു അല്ലേ മ് അങ്ങനെയാകുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും പഠിപ്പിക്കാൻ നമ്മളെ വിളിച്ചാൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല പറഞ്ഞുതരാൻ പിന്നെ അടുത്തിരുത്തി പറഞ്ഞുകൊടുക്കാൻ പാരെന്റ്സ് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കൂ കേട്ടോ ആ പിന്നെ ഇനിയിപ്പോൾ എപ്പോഴാണ് വരുന്നുണ്ടാവുക ആ അപ്പോൾ കുഴപ്പമില്ല ലീവ് എടുത്തോളൂ കേട്ടോ ഞാനെന്തായാലും ഇൻഫോം ചെയ്യാം എന്തെങ്കിലും ഇമ്പോർട്ടൻറ് കാര്യം ഉണ്ടെങ്കിൽ ആ പറയാം പറയാം ഓക്കെ ഓക്കെ ശരി കേട്ടോ ഓക്കെ ഓക്കെ ശരി